വസ്ത്രങ്ങള് കഴുകാന് വേണ്ടി കൂടുതലായിട്ടും ഒത്തിരി മുഷിഞ്ഞ വസ്ത്രങ്ങളാണെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ദിവസം ഓരോ ദിവസവും വസ്ത്രങ്ങൾ അലക്കുകയാണെങ്കില് നമ്മള് സോപ്പ് ഉപയോഗിച്ചാണ് അതു കഴുകി വൃത്തിയാക്കാറുള്ളത് എന്നാലും കൂടുതലും സോപ്പ് പൊടികൾ ഉപയോഗിക്കാറുണ്ട് സോപ്പ് പൊടികളിൽ ഒത്തിരി രാസ വസ്തുക്കളുണ്ടെങ്കിൽ പോലും നമ്മള് നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള രാസ വസ്തുക്കൾ ഉപയോഗിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിലുള്ള അഴുക്കുകളൊന്നും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വ്യത്യസ്ത കാലാവസ്ഥകളിൽ വസ്ത്രങ്ങൾ ഉണക്കുന്നതെന്നുവച്ചാൽ ഇപ്പോള് വെയില് ഏറ്റവും കൂടുതല് ഇവിടെ നമുക്കിവിടെ വെയില് വെയില് ചൂടുകാലമായതുകൊണ്ടുതന്നെ നമുക്കു പെട്ടെന്നുതന്നെ വസ്ത്രങ്ങള് ഉണങ്ങിക്കിട്ടും ചൂടുകാലത്ത് ഏറ്റവും നല്ല വസ്ത്രമെന്നു പറഞ്ഞാല് കോട്ടൺ വസ്ത്രങ്ങളാണ് അപ്പോള് അതു നമുക്കു നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്താല് നമുക്കു പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ സാധിക്കും അതുപോലെതന്നെ പോളിസ്റ്റർ പോലത്തെ പോളിസ്റ്റർ റയോണ് നൈലോൺ പോലത്തെ വസ്ത്രങ്ങളൊക്കെ ആണെങ്കില് അതെല്ലാം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള വസ്ത്രങ്ങളല്ല നൈലോണും പോളിസ്റ്ററുമൊക്കെ മനുഷ്യ നിർമ്മതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അപ്പോഴത്തേനും അവയൊക്കെ പെട്ടെന്നു തന്നെ നമുക്ക് ഉണങ്ങിക്കിട്ടാനൊക്കെ സാധിക്കും ഈ മഴക്കാലങ്ങളൊക്കെ വരുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ടാല് പോലും അത് ഉണങ്ങാൻ സാധ്യത വളരെ കുറവാണ് അപ്പോള് നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷിനിൽ ഡ്രയറിനകത്ത് ഇട്ട് നമുക്ക് അത് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ നൈലോൺ പോളിസ്റ്റർ അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എളപ്പമെന്നു തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെതന്നെ നമുക്ക് അത് നൈലോണും പോളിസ്റ്ററൊക്കെ വസ്ത്രങ്ങൾ നമുക്ക് നമുക്ക് തേച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്നുതന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും നിമിഷ നേരത്തോണ്ട് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും നമുക്കു തുച്ഛമായുള്ള പൈസയിൽ നമുക്കതു ലഭിക്കുകയും ചെയ്യും പക്ഷെ പ്രകൃതിദത്തമായിട്ടുള്ള സിൽക്കും അതുപോലുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മള് പണം ചെലവാക്കിയാല് മാത്രമേ ഉള്ളൂ നമുക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങള് കിട്ടാറുള്ളൂ പിന്നെ അലക്കുമ്പോഴൊക്കെ ആയിക്കോട്ടെ നമ്മള് ഒത്തിരി ധാരാളം വെള്ളങ്ങളൊന്നും പാഴാക്കാറൊന്നും ഇല്ല കാരണം നമ്മള് വാഷിംഗ് മെഷീനാണെങ്കിലും നമ്മള് വാഷിംഗ് മെഷീനില് ഉപയോഗിക്കുമ്പഴത്തേനു നമ്മൾ ഒരാഴ്ചത്തേത് ഒരുമിച്ചായിരിക്കും വസ്ത്രങ്ങളൊക്കെ അലക്കുന്നത് അപ്പോഴത്തേനും അതുപോലെ ഒരു വ്യക്തിയുടെ മാത്രമായിട്ടല്ല നമ്മള് എല്ലാവരുടെയും വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയുംകൂടെ ഒരുമിച്ചായിരിക്കും അലക്കുന്നത് അപ്പോള്ത്തന്നെ നമ്മള് ഒത്തിരി ജലം പാഴാക്കണ്ട ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല കൂടാതെ തന്നെ നമ്മള് അലക്കിയെടുക്കുകയാണെങ്കിലും അത്യാവശ്യം നമ്മള് അലക്കുന്ന സമയം സോപ്പ് തേച്ച് അലക്കുന്ന സമയത്തൊന്ന് നമ്മള് വെള്ളം തുറന്ന് ടാപ്പ് തുറന്നുവിട്ടു വെള്ളം അങ്ങനെ പാഴാക്കാറൊന്നും ഇല്ല ആവശ്യമള്ള സമയത്തു മാത്രമേ നമ്മള് വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ അത് നമ്മുടെ ആവശ്യം കഴിയുമ്പോള് നമ്മളാ ടാപ്പ് അടച്ചുവയ്ക്കാറുമുണ്ട് പിന്നെ വ്യത്യസ്ത ഇപ്പോള് തണുപ്പു കാലം തണുപ്പു കാലം വരുമ്പോഴായിക്കോട്ടെ നമുക്ക് അന്തരീക്ഷത്തിലൊരു ഈർപ്പം നില്ക്കുന്നുണ്ടാകും അപ്പോഴാണെങ്കിലും വസ്ത്രങ്ങൾ ഉണങ്ങിയെടുക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നോക്കുമ്പോഴത്തേനും എത്രയും പെട്ടെന്നൊക്കെ തന്നെ വസ്ത്രങ്ങളൊക്കെ ഉണക്കി എടുക്കാൻ വേണ്ടി സാധിക്കും അ മഴക്കാലത്തു മാത്രമേ കുറച്ചു പ്രശ്നമുണ്ടാകത്തുള്ളൂ മഴക്കാലത്താണെങ്കില് പോലും നമുക്ക് വാഷിംഗ് മെഷീൻ ഇപ്പോള് എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് അതിനകത്ത് ഡ്രയറെന്ന സംവിധാനമൊക്കെ ഉണ്ട് ആ സംവിധാനത്തിലൂടെ പാതി നമുക്ക് വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിക്കിട്ടും പിന്നെ നമുക്കു പുറത്തു വെയിലത്തുണങ്ങാൻ പറ്റാത്തതുകൊണ്ടുതന്നെ നമ്മള് വീടുകളില് ഫാനൊക്കെ ഇട്ട് അതിനെ നമ്മള് ഉണക്കിയെടുക്കാറുണ്ട് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടണ്ടുന്നതു കുട്ടികളുടെ യൂണിഫോമാണ് കുട്ടികൾക്ക് യൂണിഫോം ഉണ്ടെങ്കിൽ അത് ഈ രണ്ട് ജോടിയൊക്കെ വീതമല്ലേ കാണത്തുള്ളൂ അപ്പോഴത്തേനും അലക്കി കഴിയുമ്പോഴത്തേനും അതുണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ട് വരും അപ്പോള് സ്കൂളുകൾക്കു പിറ്റേ ദിവസം സ്കൂളിലോട്ട് അവർക്കു ധരിച്ചുകൊണ്ടു പോകണമെങ്കിൽ അതു ബുദ്ധിമുട്ടായിട്ടു വരുന്നു അപ്പോള് നമ്മള് ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അത് ഡ്രയര് ഡ്രയര് ഉപയോഗിച്ച് അതില് തുണി ഇപ്പോള് ആദ്യം ഉണക്കിയെടുക്കും പിന്നീട് നമ്മളത് ഫാനിന്രെ അടിയിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാറാണു പതിവ് പിന്നെ വസ്ത്രങ്ങള് കഴുകാൻ വേണ്ടി കൂടുതലും നമുക്ക് സോപ്പുകൾ ഉപയോഗിക്കാം അതുപോലെ ജസ്റ്റ് ഒരു വസ്ത്രമൊക്കെയേ ഉള്ളൂ എങ്കില് നമുക്ക് പെട്ടെന്നു തന്നെ നമുക്കു കൈകൊണ്ടു തന്നെ പെട്ടെന്ന് അലക്കി എടുത്ത് തിരുമ്മി എടുത്തുണങ്ങാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ മാത്രം ഒത്തിരി വസ്ത്രങ്ങളുണ്ടെങ്കിൽ മാത്രം ഒത്തിരി വസ്ത്രങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മള് അലക്കുന്നതുള്ളൂ അല്ലെങ്കില് അവനവന് തന്നെ സ്വയമേ ഒരു വസ്ത്രമാണെങ്കിൽ സ്വയമേ തന്നെ കൈ ഉപയോഗിച്ച് സോപ്പൊക്കെ ഉപയോഗിച്ച് പെട്ടെന്നുതന്നെ അലക്കി എടുക്കാറാണ് എടുക്കാറാണു പതിവ് അതുമല്ല പിന്നെ വേനല്ക്കാലത്തു നമുക്കു സുലഭമായിട്ട് നമുക്കു വെള്ളം കുറവാണെങ്കില്പ്പോലും പക്ഷെ നമുക്കു പെട്ടെന്നു വസ്ത്രങ്ങളുണക്കിയൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോള് ഇപ്പോള് അതുപോലെതന്നെ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അവർ ചെയ്യുന്നതും എന്നാ വസ്ത്രങ്ങളൊക്കെ ഒത്തിരി മുഷിയാത്ത വസ്ത്രങ്ങളൊക്കെയാണെങ്കിൽ ഒരു രണ്ടു ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് അവര് കഴുകുന്നു അപ്പോഴത്തേനും നമുക്കു വെള്ളത്തിൻ്റെ വെള്ളം നഷ്ടമാകുന്നുമില്ല വസ്ത്രങ്ങൾ നമുക്ക് ഉണിക്കടുക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ ആ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ലഭ്യത ഒത്തിരി ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഉണക്കിയെടുക്കുവാനുള്ള സാധ്യത അവിടെ കുറവാണ് അതിനാൽ വാഷിംഗ് മെഷീൻ ഇപ്പോള് എല്ലാ എല്ലാ വീടുകളിലും തന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടു തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഡ്രയർ എന്ന സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം വെള്ളം പാഴാക്കുന്നില്ല എന്നു നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും കാരണം ഇപ്പോള് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോള് എല്ലാ വീടുകളിലും വെള്ളം വാട്ടർ കണക്ഷൻ വന്നിട്ടള്ളതുകൊണ്ടുതന്നെ ആ വെള്ളത്തിൻ്റെ ബില്ല് അടയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോള് നമ്മള് എന്തുമാത്രം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് എന്തുമാത്രം ചെലവായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ബില്ലിലൂടെ നമുക്കു മനസ്സിലാക്കാൻ സാധിക്കും ബില്ലിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു മാസത്തെ വെള്ളത്തിൻ്റെ ചെലവ് അ എങ്ങനെയാണ് അല്ലെങ്കില് വെള്ളം നഷ്ടമാക്കിയിട്ടുണ്ടോ അല്ലെങ്കില് വെള്ളം നമ്മളാവശ്യത്തിനു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളോ ഉപയോഗിച്ചിട്ടുള്ളോ എന്നൊക്കെ നമുക്ക് അതിലൂടെ ആ ബില്ലിലൂടെ നമുക്കു വ്യക്തമാക്കാൻ അല്ലെങ്കില് നമുക്കു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും